എനിക്ക് സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയം ബയോളജിയും അതുപോലെ മാത്സും ആയിരുന്നു അതുപോലെ തീരെ ഇഷ്ടമല്ലാത്ത പ്രയാസമുള്ള വിഷയം ഇംഗ്ലീഷ് ആയിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ചെറിയ ക്ലാസ്സ് മുതലേ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു മലയാളം മീഡിയം പഠിച്ചതുകൊണ്ടുതന്നെ എനിക്ക് ഇംഗ്ലീഷ് വളരെ ടഫ് ആയിരുന്നു പഠിക്കാനാണെങ്കിലും അത് ഒരുപാട് വലിയ ക്ലാസ്സിലെത്തിയതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ പഠിക്കാൻ ഒരിഷ്ടം വന്നത് പിന്നെ പത്തുവരെ മലയാളം മീഡിയം ആയതുകൊണ്ട് ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം നൽകുക ഇംഗ്ലീഷ് ഒരു സബ്ജെക്ടിന് മാത്രം പ്രാധാന്യം നൽകി വരുന്നു ഒന്നും ഇംഗ്ലീഷ് അല്ലായിരുന്നു പക്ഷെ ഒരു പ്ലസ്വൺ പ്ലസ്ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഫുൾ ഇംഗ്ലീഷ് തന്നെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയി പഠിച്ച് വന്നതായിരുന്നു പിന്നെ സന്തോഷമുള്ള ഓർമ്മയെന്ന് വച്ചാൽ കൂട്ടുക്കാരെ അടുത്ത് പത്താം ക്ലാസ്സിലൊക്കെ അടി നല്ല നല്ല സൗഹൃദങ്ങളും അതുപോലെ ഓരോ ഇൻ്റർവെൽ ആകുമ്പോൾ പുറത്തേക്ക് പോകും പിന്നെ ബാത്ത് റൂമിൽ പോവും പിന്നെ ഇൻ്റർവെല്ലിന് പൗഡറും ക്രീമും അതൊക്കെ ഇടുന്നത് നല്ലൊരു ഓർമ്മ തന്നെയായിരുന്നു